ഹലോ ഓട്ടോ ഒക്കെ ഓട്ടോ ബുക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ ഞാൻ ഒരു ഓട്ടോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നില്ല കുറേ നേരമായി കാത്തിരിക്കുന്നു ആ ഡ്രൈവർ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കുമോ ഇപ്പോൾ എവിടെയാണ് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ കുറേനേരായി ഞാൻ കാത്തിരിക്കുന്നു ഇതെന്തോന്ന് എപ്പോൾ വരുമെന്ന് അറിയുമോ ഒന്നുകിൽ അവരെ വിളിച്ചിട്ടു വേഗം വിടുക അല്ലെങ്കിൽ വേറെ ഒരു വണ്ടിയോ ബുക്ക് ചെയ്തു വിടുക ഇത് എത്ര നേരമായി ബുക്ക് ചെയ്തിട്ടിരിക്കുന്നു ഇങ്ങനെ കുറേ നേരമായില്ലേ കാത്തിരിക്കുന്നത് ഒരു കാത്തിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ മനുഷ്യൻ അയാൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരില്ലയെന്ന് പറയുക ഞങ്ങൾ വേറെ ബുക്ക് ചെയ്തോളും ഇതിപ്പോൾ വരും വരും എന്നു പ്രതീക്ഷിച്ചിട്ട് എത്ര നേരം ഇരിക്കുക എവിടെയാണെന്ന് ഒന്നന്വേഷിച്ചിട്ട് പറ ഒന്നുകിൽ വേഗം പറഞ്ഞു വിട്